ഞാൻ പത്രത്തിൽ എല്ലാതരം വാർത്തകളും ശ്രദ്ധിക്കാറുണ്ട് പത്രങ്ങളിൽ വാർത്തകൾ വായിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് എന്ന ക്രമത്തിലാണ് വായിക്കാറുള്ളത് നാട്ട് വിശേഷം എന്ന ഭാഗമാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നാട്ടുവിശേഷം എന്ന ഭാഗം പ്രധാനമായിട്ട് നോക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ദൈനംദിന കാര്യങ്ങളെല്ലാം കൃത്യമായി അതുവഴി അറിയാൻ സാധിക്കുന്നുണ്ട് അതിനു ശേഷം അടുത്ത പേജുകൾ പ്രധാനമായും പ്രധാന വാർത്തകൾ പ്രധാന വാർത്തകൾ നമ്മുടെ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു കേരളത്തിൽ എന്തു സംഭവിച്ചു രാഷ്ട്രീയ സിനിമ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ എല്ലാ വാർത്തകളും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ പ്രധാന വാർത്തകളെല്ലാം തന്നെയാണ് നമ്മൾ നോക്കുന്നത് അതിന് ശേഷം പിന്ന വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരമക്കോളം നോക്കാറുണ്ട് പിന്നെ നമ്മുടെ കാഴ്ചപ്പാട് പേജുകൾ പിന്നെ ലേഖനങ്ങൾ വ്യക്തി വിവരങ്ങൾ എന്നു തുടങ്ങി അവസാനമാണ് നമ്മൾ കായികം പേജിലേക്ക് വരുന്നത് കായികം പേജ് പിന്നെ പ്രധാന വാർത്തകൾ തുടങ്ങി എല്ലാത്തരം വാർത്തകളും നമ്മൾ ചെക്കിങ്ങ് ഉണ്ട് പിന്നേ മറ്റൊരു രീതി മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ സ്പോർട്സ് പിന്നെ സപ്ലിമെൻറ്റ് പേജുകൾ പിന്നെ എത്ര പരസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ വാർത്തകളും ഉൾപ്പെടെ നമ്മൾ അത് ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഓരോ തരത്തിലും നമ്മൾ ദൈനംദിന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പിന്നെ പരസ്യങ്ങൾ പിന്നെ പരസ്യങ്ങളെ തുടർന്ന് പിന്നെ നമ്മുടെ ജോലി സാധ്യതകളുള്ള പേജുകൾ അറിയിപ്പുകൾ തുടങ്ങി എല്ലാതരം വർത്തകളും നോക്കുന്നുണ്ട് ഇപ്പം കൂടുതലും പത്രങ്ങളിൽ പ്രധാന പേജുകളിൽ വരുന്നത് പരസ്യങ്ങളാണ് കൂടുതലും പരസ്യങ്ങളുടെ ഒരു അതിപ്രസരമാണ് നമ്മുടെ വർത്തമാനകാല പത്രങ്ങളിലെല്ലാം തന്നെ കൂടുതലായിട്ട് ഉള്ളത് എന്നിരുന്നാൽ പോലും ഇന്നത്തെ കാലത്ത് എല്ലാ വാർത്തകൾ വായിക്കാൻ വേണ്ടി എനിക്ക് താല്പര്യമുണ്ട് അത് ഇപ്പം എൻ്റെ വിനോദ വാർത്തകൾ ആണെങ്കിലും ബിസ്നസ് വാർത്തകളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇപ്പം ഇക്കാര്യങ്ങളിൽ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് ഓരോ ദിവസവും വാർത്തകൾ വായിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വാർത്താധിഷ്ടിത ലേഖനമാണെങ്കിൽ കൂടുതലും പത്രത്തിൽ വരുന്ന നമ്മുടെ രാഷ്ട്രീയപരമായ വാർത്തകൾ നമ്മൾ കൂടുതൽ വിശദമായി വാർത്ത വായിക്കാറുണ്ട് നമ്മുടെ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പ്രാർട്ടികളുടെ പ്രവർത്തന മേഖല എന്താണെന്നുള്ളതും അവരുടെ നമ്മളോടുള്ള ജനങ്ങളോടുള്ള പ്രതിബദ്ധത എന്താണെന്നുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ആണ് ഇത്തരം വാർത്തകൾ ഞാൻ കൂടുതലായും ശ്രദ്ധിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ സാമൂഹ്യ കാഴ്ചപ്പാടുകൾ പിന്നെ സർക്കാർ നൽകുന്ന പരസ്യങ്ങൾ അല്ലാത്ത കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കാറുണ്ട് പിന്നെ കായികം പേജ് വളരെ അവസാനം വായിക്കുന്നത് എന്തെന്നാൽ വളരെ വിശദമായി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് കായികത്തിനുള്ള പേജ് വളരെ വിശദമായി നമ്മള് വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാലും പത്രം വായിക്കുക എന്നുള്ള നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായത് കൊണ്ട് തന്നെ നമ്മൾക്ക് അക്കാര്യത്തെ വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്